എനിക്ക് എനിക്ക് ഒരു വിഷമകരമായിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത് ഞാനിപ്പോൾ വിദേശത്താണ് വിദേശയാത്രയ്ക്ക് ഇടയിൽ എൻ്റെ പാസ്പോർട്ട് നഷ്ടമായി ഞാനിപ്പോൾ എനിക്ക് എനിക്ക് നാട്ടിലേക്ക് വരണമെങ്കിൽ ആ പാസ്പോർട്ട് പുതുക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടത് ഉണ്ട് എനിക്ക് അത് എടുക്കുന്നതിനേക്കുറിച്ച് കൂടുതൽ ഒന്നും അറിയില്ല എവിടെയാണതിൻ്റെ അപേക്ഷ നൽകേണ്ടതെന്നും എത്രകാലം വേണ്ടിവരും അത് പുതുക്കി അല്ല അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നതിനും ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയാൽ മാത്രമേ എനിക്ക് പുതുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ ആ ഞാനിപ്പോൾ വിദേശത്ത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഇത് ഈ മോഷ്ടിച്ച പാസ്പോർട്ടിനെക്കുറിച്ച് ഞാനാ ഞാൻ ആരോടെങ്കിലും പരാതി നല്കിക്കഴിഞ്ഞാൽ എനിക്കത് തിരിച്ച് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകുമോ അതിനെക്കുറിച്ച് നിനക്കെന്തെങ്കിലും പറയാൻ കഴിയുവോ അനു നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ പാസ്പോർട്ട് പുതുക്കിയാൽ മാത്രമേ എനിക്ക് നാട്ടിലേക്ക് വരാൻ കഴിയുക ഉള്ളു ഇവിടെ പാസ്പ്പോ പാസ്പോർട്ടിൻ്റെ കാലാവധി ഏകദേശം കഴിയാറായി അപ്പം അത് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഇവിടെ നിന്നും ജോലിചെയ്യാൻ സാധിക്കില്ല എനിക്ക് പുതു നാട്ടില് വന്ന് പുതുക്കിയാൽ മാത്രമേ തിരിച്ച് വിദേശത്തേക്ക് മടങ്ങിവരാനും സാധിക്കുകയുള്ളൂ വിദേശത്താണ് ഇപ്പം ഞാന് ജോലി നോക്കുന്നത് അപ്പോൾ എൻ്റെ കുടുമ്പത്തിൻ്റെ അവസ്ഥ വലിയ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ അനു